എന്നെ ഏറ്റവും കൂടുതൽ സങ്കടപെടുത്തിയതും കരയിച്ചതും മനസിനെ നന്നായിട്ട് അലട്ടിയതുമായിട്ടുള്ള ഒരു നോവലാണ് ബെന്യാമിൻ്റെ ആടുജീവിതം എന്നു പറയുന്നത് ഇത് എന്ന് പറയുമ്പം ഗൾഫ് ജീവിതത്തിൻ്റെ ആരും കാണാത്തൊരു മറ്റൊരു മുഖം കാണിച്ചു തന്നൊരു നോവൽ എന്ന് വേണമെങ്കിൽ പറയാം ആടു ജീവിതം ഈ ഒരു നോവലിലെ മെയിൻ ഒരു കഥാപാത്രമാണ് നജീബ് എന്ന് പറയുന്ന ഒരാൾ അയാളൊരു മലയാളി ആണ് മാത്രവുമല്ല ഇത് യഥാർത്ഥത്തിൽ നടന്നൊരു സംഭവം ആയതുകൊണ്ട് തന്നെ എനിക്ക് വായിച്ചപ്പോൾ ഒരുപാട് എൻ്റെ മനസിനെ സങ്കടപെടുത്തിയൊരു നോവലാണത് വലിയ സ്വപ്നങ്ങളുമായി സൗദി അറേബ്യയിലേക്ക് പോയി വഞ്ചിക്കപ്പെട്ട ഒരാളാണ് നജീബ് എന്ന് പറയുന്നത് ഒരുപാട് സ്വപ്നങ്ങളും ഭാവിയിൽ നല്ലൊരു ജീവിതം കിട്ടും എന്നുള്ള ഒരു സ്വപ്നവുമായിട്ട് വിമാനം കയറിയ ഒരാളാണ് നജീബ് സൗദി അറേബിയയിലേക്കാണ് പോയത് അവിടെ ചെന്നു അയാൾ വഞ്ചിക്കപ്പെട്ടു അയാളെ നേരെ മരുഭൂമിയിൽ ഒരു ആടു വളർത്തൽ കേന്ദ്രത്തിലേക്ക് ഒരു അറബി കൊണ്ട് പോയി ഏകദേശം മൂന്നിലേറെ വർഷം അവിടെ അടിമപ്പണിയെടുത്ത് അയാൾക്ക് ജീവിക്കേണ്ടി വന്നു ആ ഒരു മരുഭൂമിയിലെ കൊടും ചൂടിൽ നജീബ് അനുഭവിക്കപ്പെട്ട അതിദാരുണമായ കാര്യങ്ങൾ ഒരുപാട് എൻ്റെ മനസിനെ അലട്ടിയിട്ടുണ്ട് ഒരുപാട് പ്രതീക്ഷകളോടെ ആണ് അയാൾ വിമാനം കയറിയത് നജീബ് വിമാനം കയറിയത് ആരും കേൾക്കാനും സഹിക്കാനും ആകാത്ത വിധം കഠിനയാതനകളാണ് അയാളെ അവിടെ കാത്തിരുന്നത് ആ ഒരു മരുഭൂയിൽ കുടിക്കാനായിട്ട് വെള്ളമോ പോലും വെള്ളം പോലും ഇല്ല എന്തിനു കിടക്കാൻ പോലും ഇടം ഇല്ല ഉടുതുണിക്ക് മറുതുണി ഇല്ല അങ്ങനെ ഒരുപാട് അയാൾ നരക ജീവിതം അവിടെ ഒരു ഏകദേശം ഒരു മൂന്ന് വർഷം അയാൾ അവിടെ സഹിച്ചു നിന്നു എൻ്റെ മനസിനെ ഒരുപാട് അലട്ടിയ കാര്യങ്ങളായിരുന്നു അത് ആ ഒരു മൂന്ന് വർഷത്തെ കഥ എന്നെ ഒരുപാട് അലട്ടി അയാൾ അവിടെ അവിടുന്ന് അയാൾ സഹിച്ച ഓരോ കാര്യങ്ങൾ അയാളുടെ ത്യാഗങ്ങൾ എല്ലാം എന്നെ ഒരുപാട് വിഷമിപ്പിച്ചു എല്ലാം സഹിച്ച് അയാൾ ഒരു ദിവസം രക്ഷപ്പെടുമെന്ന പ്രതീക്ഷയിലായിരുന്നു അയാൾ ജീവിച്ചിരുന്നത് അതുപോലെ തന്നെ വായിക്കുന്ന എനിക്കും ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു അയാൾ രക്ഷപ്പെടും രക്ഷപ്പെടും രക്ഷപ്പെടണേന്നും ഞാനും പ്രാർത്ഥിക്കുകയും ഉണ്ടായിരുന്നു ഒട്ടും വിശ്രമമില്ലാത്ത ഒട്ടും വൃത്തി ഇല്ലാത്ത ഒരു സാഹചര്യത്തിലായിരുന്നു നജീബ് ജീവിച്ചിരുന്നത് അവിടെ ആടുകൾക്കിടയിലൊക്കെയാണ് കിടന്നുറങ്ങിയിരുന്നത് കഴിക്കാനാണെങ്കിൽ തുച്ഛമായ ഭക്ഷണമാണ് കിട്ടുന്നത് ചിലപ്പോൾ ഒരു കുബൂസ് അല്ലെങ്കിൽ ഒരു റൊട്ടി അങ്ങനെ ഉള്ള രീതിയിലാണ് കിട്ടുന്നത് അവിടെ ആടുകളും ഒട്ടകങ്ങളുമായിരുന്നു നജീബിന് കൂട്ട് അവരോട് സംസാരിച്ച് ഇണങ്ങിയും പിണങ്ങിയും ആയിരുന്നു ജീവിച്ചിരുന്നത് ആകെ മുടിയെല്ലാം വളർന്ന് താടിയെല്ലാം വളർന്ന് ഒരു വിരൂപനായിട്ടാണ് അയാളവിടെ ജീവിച്ചിരുന്നത് കൊടും വെയിലിൽ നല്ല ചൂടിൽ കറുത്ത് ഒരു ഒരു വികൃത രൂപനായിട്ടാണ് അയാളവിടെ ഉണ്ടായിരുന്നത് എല്ലാം സഹിച്ച് ഒരുപാട് കഷ്ടപ്പെട്ട് അവിടെ നിന്ന് രക്ഷപെട്ടപ്പോൾ അവിടെ നിന്നു അയാൾ രക്ഷപെട്ടപ്പോഴാണ് എൻ്റെ മനസ് മനസിനൊന്നു ആശ്വാസമായത് അത് വരെ എനിക്ക് ആശങ്കയായിരുന്നു പക്ഷെ അവസാനം നല്ലൊരു എൻഡിങ് ആയതുകൊണ്ട് തന്നെ എൻ്റെ മനസിന് നല്ലൊരു ആശ്വാസം ഉണ്ട്